സാംസകാരിക വിനിമയത്തിനും അതുപോലെ ആശയ വിനിമയത്തിനും നമ്മുടെ മാതൃഭാഷക്കുള്ള പങ്ക് അത് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മലയാളികൾ അതായത് നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് പോയാലും വേറെ ഏതൊരു സംസ്ഥാനത്ത് പോയാലും വേറെ ഏതൊരു രാജ്യത്ത് പോയാലും മലയാളം സംസാരിക്കുന്നവരെ കണ്ടാൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരോട് അനായാസമായി യാതൊരു വിധ പ്രശ്നങ്ങളും കൂടാതെ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കും വേറെ ഏതൊരു ഭാഷയിലും നമുക്ക് പ്രാവീണ്യം ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ സ്വന്തം മലയാള ഭാഷയിൽ മറ്റു ആളുകളുമായി സംവദിക്കാൻ കഴിയുന്നത് അത് വലിയ ഒരു ആശ്വാസം തന്നെയാണ് അതുപോലെ തന്നെയാണ് അത് കേൾക്കുന്നവർക്കും അവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തോടെ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ മനസ്സിനെ വളരെ ഒരു ഉന്മേഷവും ഉത്സാഹവും നൽകുവാനും സഹായിക്കും മലയാളത്തിൽ സംസാരിക്കുന്നത് എന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അത് നമ്മൾ മലയാള ഭാഷയെ അംഗീകരിക്കേണ്ടതുമാണ്